ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ വീടിൻ്റെ പ്രദേശങ്ങളിലുള്ള കുട്ടികളെ ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർ വഴിവിട്ട് പോകുന്നു എന്ന് നമുക്കൊരു ചിന്തയുണ്ടായാൽ അപ്പം തന്നെ നമ്മളവരെ വിലക്കുവാനും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ സഹായിക്കണം പിന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് നോക്കുവാണെങ്കിൽ അവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാം മുൻപിലാണ് എങ്കിൽ തന്നെ അവർ അവരെയാണെങ്കിൽ മുതിർന്ന വ്യക്തിള് മയക്കുമരുന്നിനും ലഹരിക്കെല്ലാം അടിമപ്പെടുത്താൻ സാഹചര്യമുണ്ട് അപ്പം നമ്മൾ അവർ കൂട്ടുകെട്ടിലോട്ട് കൂടുതൽ വിടാതെ ശ്രദ്ധിക്കുക പിന്നെ അവരെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം കാരണം അവർ ചെയ്യുന്ന ഇത് തെറ്റാണോ തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയണം ഇപ്പം നമ്മൾ അവർ എന്നാ വിചാരിക്കുമെന്നൊന്നും ഓർക്കരുത് നമ്മൾ പരമാവധി അവർ ചെയ്യുന്ന തെറ്റുകളവരുടെ വീടുകളിൽ ചെന്ന് പറയുവാൻ അവരുടെ മാതാപിതാക്കളോട് കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് പറയുവാനും ശ്രമിക്കുക പല കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് പല റിലേഷനുകളിൽ ഏർപ്പെട്ട് പിന്നെ ആ റിലേഷനുകളിൽ നിന്ന് അവർക്ക് പുറപ്പെടുവാൻ കഴിയാതെ വണ്ണം അവരായി തീരുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ കുട്ടികളാത്മഹത്യ സൂസൈഡ് അതിനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ട് അപ്പം നമ്മൾ അതിനെ ഒക്കെ കുട്ടികളെ പൂർണമായും യും തരണം ചെയ്യുക എങ്ങനെ തരണം ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് പറഞ്ഞ് വിദ്യാഭ്യാസത്തിന് ഉപരി നമ്മൾ അവർക്ക് ഒരു ചെറിയ ചെറിയ സ്വയം തൊഴിലും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് അവർക്ക് തന്നെ ചിന്തിക്കാനുള്ളൊരു പ്രാപ്തത നമ്മൾക്ക് അവർ നമ്മളവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് പിന്നെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ എന്തൊക്കെ കാര്യമാണ് പറയുന്നത്

വിലക്കണം പക്ഷെ അവർ പറയുന്ന കാര്യത്തിൽ നല്ലത് കാണും പക്ഷെ അത് നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതാണെങ്കിൽ കേൾക്കാനും ഒക്കെ നോക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലവർക്ക് സപ്പോർട്ട് ചെയ്യണം പഠിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം അവർക്ക് സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ പഠിക്കുവാനും അവർക്ക് നമ്മൾ പിന്തുണ എന്നാൽ അവരെ ട്യൂഷന് വിടുക നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണേൽ അവർക്ക് ട്യൂഷന് വിടുകയും അതുപോലെ തന്നെ അവര് അവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അറിവ് പകർന്നു കൊടുത്താലേ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം പിന്നെ അവരുടെ ജീവിതം കണ്ട് മറ്റുള്ളവര് പഠിക്കണം ഇതൊക്കെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശമാണ് അപ്പം ഇതൊക്കെ കേട്ടെങ്കിലും കണ്ടെങ്കിലും മാത്രമേ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുൻപോട്ടു കൊണ്ടുപോകുകയുള്ളു അപ്പം അവർ പണ്ട് ഉള്ള ഈ സ് കഴിഞ്ഞ കാലങ്ങളിലുള്ള നല്ല രീതിയിൽ പഠിച്ച നല്ല നിലയിലെത്തിയിട്ടുള്ള ആളുകൾ നമ്മൾ അവർക്ക് പറഞ്ഞുകൊടുക്കണം കാരണം ഇപ്പം നോക്കുവാണേൽ നമുക്ക് ഡോക്ടർ അംബേദ്കറിനെ തന്നെ നോക്കുവാണെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളൊക്കെ ആകാൻ അവരെ നമ്മൾ പരിശ്രമിപ്പിക്കണം നിങ്ങൾ ഇപ്പം ന്യൂട്ടൻ അങ്ങനെ ഉള്ള പല പല ഐസക്ക് ന്യൂട്ടൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പഠിച്ചെങ്കിലേ മാത്രമേ ഇങ്ങനെയാവു നിങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥരും ഉദ് വലിയ വലിയ ജോലിക്കാരൊക്കെ ആകണം അതിന് നിങ്ങൾ പരിശ്രമിക്കണം കൂടുതലായിട്ട് പരിശ്രമിക്കണം അങ്ങനെ വേണം നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മള് ചെറിയ കാര്യമാണെങ്കിലും അത് നല്ല രീതിയിൽ മനസ്സിലിരുത്തി മനസ്സിലാക്കി പഠിക്കുവാണേൽ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ സന്ദേശവും ആ ഇതും നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യം നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് നല്ല വ്യക്തമായിട്ട് വേണം പഠിക്കാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണേൽ നമ്മുടെ കുട്ടികൾക്ക് വേണം ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതികളാണ് വേണ്ടത് അപ്പം ആദ്യം വേണ്ടതും ആ കുട്ടികൾക്ക് അച്ചടക്കം വേണം പിന്നെ ആതിഥ്യമര്യാദ വേണം ഇപ്പം വീട്ടിലോട്ട് ആരേലും കയറി വരികയാണേൽ ആദ്യം എണീക്കുവാനോ അങ്ങനെയുള്ള ഒരു ബഹുമാനം അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ കുട്ടികൾക്ക് എന്താ സംസാരിക്കേണ്ടത് മുതിർന്നവരോട് റെസ്പെക്റ്റ് വേണം പിന്നെ ദൈവ ഭക്തി വേണം പിന്നെ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം കുട്ടികളോട് നമ്മൾ പറയണം അപ്പം നമ്മൾ കുട്ടികളോട് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ വിദ്യഭ്യാസത്തെ കുറിച്ച് അവർക്ക് നല്ലൊരു ബോധം നമ്മളവരുടെ മനസ്സിനുണർത്തി കൊണ്ടു വരണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർ അവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസം കൊണ്ടെന്താണ് ഗുണം അത് നമുക്കാദ്യം അവരെ ബോധ്യപ്പെടുത്തണം പിന്നെ നിങ്ങൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം ചെയ്യേണ്ട കുറച്ച് ആതിഥ്യമര്യാദകളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുവാനും നിങ്ങൾക്കൊരു ജോലി നേടിക്കഴിഞ്ഞ് എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുവാനും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം വീടില്ലാത്തവർക്ക് വീട് വസ് വസ്ത്രമില്ലാത്തവർ കുടിവെള്ളമില്ലാതെ ഭാരപ്പെടുന്ന അവരൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ അവർക്കൊക്കെ ആവശ്യമായ സാധനങ്ങൾ അവരുടെ വീടുകളിലെത്തിച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ കുട്ടികളെ ഒക്കെ സഹായിക്കണം അതിനായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കുകയൊക്കെ ചെയ്യണം അതിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ ഒക്കെ വിളിച്ച് നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് ലഹരി മറ്റു പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സോ അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയൊക്കെ ആണേൽ അപ്പം കുട്ടികളെ കൂടുതൽ നമ്മൾ മുൻപോട്ടു കൊണ്ട് പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ആദ്യം ശ്രമിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ബോധവൽക്കരണ ക്ലാസ് അത് എന്ന് പറയുമ്പോൾ പല തരത്തിൽ പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം അവർ തിരിച്ച് തിരിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ മാതാപിതാക്കൾക്ക് കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ മുൻപോട്ടു കൊണ്ടുപോകാൻ കഴിയും അപ്പം ഇങ്ങനെ ഉള്ള ബോധവൽക്കരണമൊ ക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ മുൻപോട്ടു പോകാം അവർക്ക് പഠിക്കാനുള്ളൊരു ഉന്മേഷവും ഉപയോഗവും ഒക്കെ കിട്ടി വന്ന് ഞാൻ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്